മെയിനായിട്ട് ഇപ്പം നമ്മൾ കൃഷിയിലും വീട്ടുമുറ്റത്തും പിന്നെ വളർത്തുന്ന ചില സാധാരണ കോഴികൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് പറയാം സാധാ നാടൻ കോഴികൾ അതായത് കരിങ്കോഴി ഗിരിരാജൻ കോഴി അല്ലാണ്ടുള്ള നാടൻ കോഴികൾ അങ്ങനെയുള്ളതൊക്കെയായിരിരിക്കും കൂടുതൽ വീട്ടുമുറ്റത്ത് വളർത്തുക അല്ലാണ്ട് നമ്മൾ ബ്രോയ്ലർ കോഴിയെയൊന്നും ഒരിക്കലും ആരും വീട്ടുമുറ്റത്ത് അങ്ങനെ വളർത്തൽ വളരെ കുറവാണ് വളർത്താറില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവുകൾ അങ്ങനെയുള്ളവരെയൊക്കെ അതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മൾ ചെറിയൊരു കുളം പോലെയൊക്കെ കുത്തിയിട്ടായിരിക്കും താറാവിനെ ഒക്കെ വളർത്തുന്നത് അവറ്റങ്ങൾക്ക് അതായത് കുളത്തിൽ കുളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനുള്ളൊരു സാഹചര്യം ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിരിരാജൻ കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് സാധാ നാടൻ കോഴിയുണ്ട് എല്ലാം അത്യാവശ്യം നല്ല കോഴികളാണ് നമ്മൾ വീട്ടിൽ പാചകത്തിനൊക്കെ നമ്മളുടെ വീട്ടിലുള്ള കോഴികളെ തന്നെയാണ് മുറിച്ച് കറിയൊക്കെ വെക്കാറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോയിലർ കോഴി ഒന്നും അത്ര നല്ലതല്ലല്ലോ നാൽപ്പത് ദിവസംകൊണ്ട് മരുന്ന് കുത്തിയിട്ട് വരുന്നത് ആണല്ലോ നമുക്ക് ശരീരത്തിന് ഭയങ്കര കേടാണല്ലോ പിന്നെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടുതന്നെ നമ്മൾ നാടൻ കോഴിയാണ് കൂടുതൽ മേടിക്കാറ് ഇപ്പോൾ വീട്ടിലൊക്കെ കോഴിയെ കൊല്ലണ്ട എന്ന ഇത് ആണെങ്കിൽ ഞങ്ങൾ നാടൻ കോഴി പുറമെയെന്ന് മേടിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് സാധാരണ